ആ ഹലോ ആ ഇത് മെയ്ദീൻ അല്ലേ പെയിൻറ് അടിക്കുന്ന നമ്മുടെ വീടേ പെയിൻറ് അടിക്കണ്ടേനു അപ്പോൾ ഒരു അഞ്ച് കൊല്ലം ആയി ഇപ്പോൾ അടിച്ചിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടാവും ആകെ പൂപ്പലൊക്കെ പിടിച്ച് മഴക്കാലം ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുവല്ലേ അല്ല അല്ല ഇത് അഞ്ച് കൊല്ലം ആയി ഇപ്പോൾ പെയിൻറ് അടിച്ചിട്ടേ ആകെ ചളി പിടിച്ച് ചരപ്പായിരിക്കുന്നു എന്നാണ് എന്ന് എന്നാ ഈ കൊണ്ടുവരുക ഇത് ഒരു രണ്ടായിരത്തി എണ്ണൂറ് എത്ര ലിറ്ററിന് വേണ്ടിവരും പെയിൻറ് ആ ആ ആ എന്നാൽ ഇതൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് ഒരു നൂറ് ലിറ്റർ അല്ലേ അങ്ങനെ വെച്ച് ആ ആ ഓക്കെ ഓക്കെ ഇപ്പം ഉം ഇതും ഏതോ എന്ത് ബ ബർജറോ ബർഗറോ അങ്ങനെ എന്തൊക്കെയോ ഒരു പേര് ആ ചങ്ങാതി ഉണ്ടല്ലോ അത് ശരീഫ് അടിച്ചിന് ആ ആ അതോ ഏതാണാവോ അറിയില്ല കമ്പനി അറിയില്ല ആ ഏതാണ് ഡബിൾ കോട്ടിംഗ് നമുക്ക് ഈ കറന്നാൽ മതി ഇപ്പോൾ പരസ്യത്തിൽ കാണുമല്ലോ തൂത്തിയാൽ പോരുന്ന സാധനം അടിച്ചാൽ മതി ഏഷ്യൻ അടി ആ ആ ഏഷ്യൻ എന്താണ് അവസ്ഥ വില വില വരുന്നുണ്ടോ വില വരുന്നുണ്ടോ ഉം വലിയ വലിയ റേഞ്ച് ആ കുഴപ്പമൊന്നുമില്ല ഉം ഇനി ഇതൊരു

കളർ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിങ്ങൾ എപ്പോളാണ് അങ്ങാടിയിൽ ഉണ്ടാവുക അല്ലേ നിങ്ങൾ പുരയിലേക്ക് വരുമോ നമുക്ക് ആ കളറും സെലക്റ്റ് ചെയ്യാൻ അല്ല നിങ്ങൾ മറ്റേ ആ കാർഡും കൊണ്ടുവരില്ലേ വരുമ്പം കാർഡ് കൊണ്ടുവരില്ലേ എത്ര ദിവസം എടുക്കും ഇത് പെയിൻറ് അടിച്ച് എത്ര ദിവസം എടുക്കും ഉം ഒരു മാസം ഒക്കെ ആവും അല്ലേ ഉം ആയിക്കോട്ടെ അത് ആ ആയിക്കോട്ടെ എന്നാൽ നിങ്ങൾ നാളെ തന്നെ വരുമോ ആ ഓക്കെ ശരി ശരി